ആ ഇതാരായിരുന്നു അതേലോ മാഡം ഓക്കെ

ചെള്ളോ നമ്മുടെ കടയിൽ നിന്ന് മേടിച്ച പ്രൊഡക്ടിന്നോ പാക്കഡ് ആയിരുന്നോ മാഡം

റിട്ടേൺ ചെയ്യാനാണെങ്കിൽ മാഡം ഈ കടയിൽ നിന്ന് മേടിച്ച ബില്ല് മാഡത്തിൻ്റെ കയ്യിലുണ്ടോ മേഡം ബില്ലൊണ്ടെങ്കിലേ നമുക്ക് സംഭവം റിട്ടേൺ തന്നാലേ നമുക്ക് വേറെ പ്രോഡക്റ്റ് വെച്ച് റീപ്ലെയ്സ് ചെയ്യാൻ പറ്റുവൊള്ളൂ ഇവിടത്തെ റൂൾ അങ്ങനെയാണ് അപ്പം ബില്ലൊണ്ടേലെ വല്ലതും നടക്കുവൊള്ളു ആം ബില്ലിപ്പം മേഡത്തിന് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിലെ എല്ലാ പ്രൊഡക്ടിലും നമ്മുടെ കടയുടെ പേരും അതേപോലെ തന്നെ പ്രൈസും കൂടെ വന്നിട്ടുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാകും അപ്പം അതിനു ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണെങ്കിൽ മേഡം അത് കൊണ്ടരുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും നമുക്ക് നോക്കാം ആ അയ്യോ മാഡം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കം ഇവിടന്നു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുണ്ടെങ്കിലേ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റത്തൊള്ളൂ ഇവിടന്നു മേടിച്ചന്നെയാണെന്നുള്ള പ്രൂഫ് നമ്മുടെ കയ്യിലില്ലല്ലോ അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ ആ മേഡം അങ്ങനെ ഞങ്ങളുടെ അടുത്തന്നു എന്തെങ്കിലും തെറ്റ് പറ്റിപോയിട്ടുണ്ടെങ്കിൽ സോറി പക്ഷേ നമ്മൾക്കിപ്പോൾ റാൻഡം ആയിട്ടിങ്ങനെ കോൾ ചെയ്യുമ്പം അങ്ങനെ നമുക്ക് തെളിവില്ലല്ലോ മേഡം അതുകൊണ്ടാണ് പ്രവേശനം പറ്റുന്നത് അത് ശരിയാണ് മാഡം ഈ പറഞ്ഞപോലെ ബില്ലോ അതേപോലെ തന്നെ റെസിപ്റ്റോ ആ ആ കവറോ കൊണ്ടരുവാണെങ്കിൽ നമുക്കെന്തെലും ഉറപ്പായിട്ടും മാഡത്തിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്തു തരാൻ പറ്റും നമുക്ക് അതാണ് നമ്മുടെ ഇതിന്റെ പോളിസിയെ ഓ മാഡം അപ്പോൾ നെക്സ്റ്റ് ഇപ്പം മാഡം ഒന്നുടെ ചെക്ക് ചെയ്ത് നോക്കുവ അഥവാ അതോ സ്റ്റിക്കറൊ അതിൽ പരിക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കൊണ്ടുവാ നമ്മളെന്താന്നു വെച്ചുകഴിഞ്ഞാൽ മാഡത്തിന് ചെയ്തു തരുന്നതായിരിക്കും ഉറപ്പായിട്ടും ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ മാഡം എന്നാണ് വരുന്നെന്ന് പറയ്യോ ആണോ മാഡം അങ്ങനെയാണെങ്കിൽ മാഡത്തിൻ്റെ പേരും നമ്പരും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നോ ആണോ അങ്ങനെയാണെങ്കിൽ ഞാനൊന്നു ചെക്ക് ചെയ്തിട്ട് മാഡത്തിനോട് പറയാം ഇതുപോലെ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് സംഭവം റിട്ടേൺ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അപ്പം മാഡം ഇവിടന്നു മേടിച്ചതാണെന്നു കരുതി ഇപ്പം ശരിക്കും ബില്ലും ഇതും ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാത്തതാണ് നമ്മൾ പിന്നെ മാഡം ഇത്രേം നമ്മുടെ ഒരു കസ്റ്റമറായതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും ചെയ്തു തരാം അപ്പോൾ മാഡമിങ്ങനെ അപ്പോൾ മാഡത്തിൻ്റെ പേരും ഡീറ്റൈൽസുവൊക്കെ ഒന്നു പറയാമോ പേരും ഇവിടെ കൊടുത്ത എന്തെങ്കിലും നമ്പര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നു പറയോ ജെസ്റ്റോന്നു അഡ്രെസ്സ് ആ ഫോൺ നമ്പരും പേരും കൂടെ പറയ്യോ മാഡം ആ ജ്യോതി ഫുൾ നെയിം ജ്യോതി ഓക്കെ ജ്യോതി ജി നായർ അഡ്രെസ്സൊ നീലാഞ്ജനം മേലുകര കോഴഞ്ചേരി ഓക്കെ മാഡം അപ്പം ചെക്ക് ചെയ്തിട്ട് ഞാൻ ഉറപ്പായിട്ടും ആ വിളിക്കാം ഓക്കെ മാഡം താങ്ക് യൂ സൊ മച്ച് താങ്ക് യൂ